അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്കെന്ന് പറയുമ്പോൾ നാല് തരത്തിലുള്ള കാലാവസ്ഥയാണ് നമ്മുടെ പ്രദേശങ്ങളില് ഇന്ത്യയില് പൊതുവേയുള്ള നാല് ഇതായിട്ട് നമുക്ക് പറയാം വേനൽക്കാലം മഴക്കാലം കാറ്റുകാലം മഞ്ഞുകാലം നമ്മൾ ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ നമ്മള് നോക്കണ പോലെ ഓരോ തരത്തിലുള്ള വിളകളായിരിക്കും മിക്കവാറും ആൾക്കാര് ചെയ്യുക ഇപ്പോൾ വേനൽക്കാലത്ത് ഇപ്പോൾ പച്ചക്കറികൾ പിന്നെ ഫ്രൂട്ട്സ് അതുപോലെ മഴക്കാലത്തും നെല്ല് കാര്യങ്ങൾ പിന്നെ ഓരോ കാലത്തിപ്പോൾ ഗോതമ്പ് അങ്ങനെ ഓരോന്നും ഓരോ കാലത്ത് പ്രത്യേകപരമായിട്ട് ചെയ്യുന്ന ഇപ്പോൾ കൃഷി പറയുമ്പോൾ മറ്റേ നമ്മൾ ഈ എന്താ പറയുക കരിമ്പ് എല്ലാം മറ്റേ പൈനാപ്പിള് കൊള്ളി ഇങ്ങനത്തെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള കൃഷികൾ ആൾക്കാരാണ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മളതായത് ഈ നമ്മുടെ ഈ പൊതുവേ പാലക്കാട് ജില്ലയിൽ നെൽകൃഷി ആയതുകൊണ്ട് പാടങ്ങളിൽ നെല്ലിൻ്റെ ഏകദേശം ഒരു മാർച്ച് മാസമൊക്കെ കഴിയുമ്പോൾ എല്ലാവിടേയും കൊയ്ത്ത് ഏകദേശം കഴിയും ആ സമയത്ത് പാടത്തവര് കുറച്ച് കപ്പയോ അല്ലെങ്കിൽ ചേനയോ ചേമ്പോ അങ്ങനെത്തെന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കും അപ്പോൾഎന്താണ് രണ്ടുമൂന്ന് മാസം കൊണ്ടത് അടുത്ത വിളയ്ക്ക് മുമ്പ് നമുക്കത് പറിച്ചെടുക്കാവുന്ന രീതിയില് പയറു കൃഷിയോ അങ്ങനെ പച്ചക്കറി കൃഷിയോ എന്തെങ്കിലുണ്ടാവും അത്യാവശ്യം വെള്ളവും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാ പച്ചക്കറി കൃഷി ചെയ്തു കഴിഞ്ഞാൽ നല്ല വിളവ് ഉണ്ടാവും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അതിന് നെല്ലിന്റെ സമയത്ത് വളം വളവും കാര്യങ്ങളൊക്കെ ഇട്ടതുകൊണ്ട് ആ സമയത്ത് നല്ല നല്ല ഈൽഡ്ണ്ടാവും നല്ല അത്യാവശ്യം നല്ല രീതിക്ക് ഒരു കിട്ടുകയും ചെയ്യും അവർക്ക് ആ സമയത്ത് വെറുതെ കിടക്കണ പാടത്തുനിന്ന് നല്ലൊരു വരുമാനമായി അതിൽ പ്രത്യേകിച്ച് നമുക്കതിലൊന്നും ചെയ്യേണ്ടി വരില്ല അത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക ആ പിന്നെ ഈ വള്ളിപ്പയറ് മറ്റേ മത്തങ്ങ കുമ്പളങ്ങ പോലത്തെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ണ്ടാവുകയും ചെയ്യും പിന്നെ നമുക്ക് കൊള്ളി കൊള്ളി ഒരു നല്ല ഒരിതാണ് കൊള്ളി കപ്പയെന്ന് പറയണത് നല്ല ഒരു ഇതാണ് അത് പിന്നെ എല്ലാ പ്രാവശ്യവും ഇല്ല അങ്ങനെ ഇന്ന കാലമെന്നില്ല അത്യാവശ്യം നമുക്കെല്ലാ കാലഘട്ടത്തിലും ഒരേപോലെ കൃഷി ചെയ്യാൻ പറ്റണ ഒരു സംഭവമാണ് കപ്പ കൊള്ളി പിന്നെ മഞ്ഞള് പിന്നെ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കൂവ കൃഷി ഇതൊക്കെ നമുക്ക് ഇട ഇടവിള ആയിട്ടോ അല്ലെങ്കിൽ മെയിനായിട്ടോ നമുക്ക് സൈഡിൽ കൂടെ ഒക്കെ കൊടുത്ത് വയ്ക്കാൻ പറ്റും അത് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പ്രാവശ്യവും വർഷത്തിൽ മൊത്തം നമുക്ക് അതിന്റെയൊരു വരുമാനം പോലെ കിട്ടുകയും ചെയ്യും